ഗ്രഹണം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന ആ സമയത്ത് സ്കൂളിലെ ടീച്ചർ പറയുമായിരുന്നു ഇങ്ങനെ കണ്ണാടി അല്ലെങ്കിൽ വർണ്ണക്കടലാസുപയോഗിച്ചുള്ള ഒരു കണ്ണാടി ഉണ്ട് അത് വെച്ചാൽ നമുക്ക് സൂര്യഗ്രഹണം കാണാം അല്ലെ ചന്ദ്ര സൂര്യഗ്രഹണം കാണാൻ പറ്റില്ല ചന്ദ്രഗ്രഹണം കാണാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതും കൊണ്ട് പോയിട്ട് നമ്മളങ്ങനെ ക നോക്കുന്നത് ച ഇതാണെന്ന് പറയുന്നത് അതെന്താണെന്നറിയില്ല പക്ഷെ ടി വിയിലും അതുപോലെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ രണ്ടാഴ്ചക്ക് മുൻപാണ് ഉൽക്ക മഴ ഉണ്ടാകും എന്ന് ന്യൂസിലൊക്കെ കണ്ടത് പുലർച്ച രണ്ടര വരെ അല്ലെങ്കിൽ മൂന്നര വരെ ഒരുപാടാൾക്കാർ ഉറക്കമൊഴിച്ച് ആകാശത്ത് നോക്കി ഉൽക്ക മഴ ഉണ്ടാകുമോ എന്ന് കണ്ടിട്ട് നോക്കിയിരുന്നിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ കൂടുമ്പോഴാണ് ഉൽക്ക മഴയൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ അത് നേരിട്ടാർക്കും ഒരാൾക്ക് പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ അത് ടി വിയിൽ ടി വിയിലല്ലെങ്കിൽ ഇങ്ങനെ ബഹിരാകാശത്ത് നടക്കുന്ന സംഭവം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് ഉൽക്ക മഴ എങ്ങനെയാണ് എന്നൊക്കെ ഓരോ ചാനലുകളിലും അതുപോലെ ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ ആ ടി വിയിൽ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ടിതു വരെ ഞാൻ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ അല്ലെങ്കിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല പിന്നെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഗ്രഹണങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ ഇത് വരെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അത് സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് തന്നെ നോക്കിയിട്ട് കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വരെ ഒരു ക്ലിയറായിട്ട് ക ഇത് വരെ കാണാൻ സാധിച്ചിട്ടില്ല ഉൽക്ക മഴയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെങ്ങനെയാണ് ഉൽക്ക മഴ ഉണ്ടാകുന്നത് എന്നൊക്കെ അറിയാം പക്ഷെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല